ഹലോ ആ ഇത് എൻ്റെ കോഫി ഷോപ്പാണേ നിങ്ങള്ക്കെന്താണ് ആവശ്യം ഇവിടെ നിങ്ങള്ക്ക് എപ്പോഴത്തേനാണ് ഫുഡ് ആവശ്യം നിങ്ങള്ക്കു കാപ്പിയാണോ ആവശ്യം വൈകിട്ടത്തേനാണോ അതോ രാവിലെത്തേനാണോ ഉച്ചയ്ക്കത്തേനാണോ എപ്പോഴത്തെ സമയത്തിനാണ് നിങ്ങള്ക്കു സാധനം വേണ്ടിയത് ഊണാണ് ഊണിന് ബിരിയാണി ഉണ്ട് ചോറുണ്ട് എന്താണു നിങ്ങള്ക്കാവശ്യം ബിരിയാണി എത്ര പേർക്കു വേണം പതിനഞ്ചു പേർക്ക് അഞ്ചു പേർക്ക് ചിക്കൻ വേണമോ മട്ടൻ വേണമോ എങ്ങനെയാണ് ചിക്കൻ മതി ആ ഒരു ചിക്കന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു ബിരിയാണിക്ക് നിങ്ങള് എങ്ങനെയാണ് സാധനം വന്നെടുക്കുമോ അതോ ഞങ്ങള് നിങ്ങളുടെ കടയില് വീട്ടിലെത്തിക്കണോ ആ അറിയാം ഞാനിവിടുന്ന് കൊടുത്തു വിടാം ആ അങ്ങനെ കൊടുത്തുവിടാം നിങ്ങളുടെ സ്ഥലം പൂച്ചുമുക്കിന് അങ്ങോട്ടു പോകുന്ന വഴിക്കല്ലേ ആ സ്ഥലത്തുനിന്നല്ലേ അപ്പോള് അഞ്ച് പേർക്കുള്ള ഫുഡ് എത്ര മണിക്കവിടെ എത്തണം എത്ര മണിക്കാണു നിങ്ങള്ക്കു സാധനം അവിടെ എത്തേണ്ടത് ഒരു പന്ത്രണ്ടര ആവുമ്പോള് ഓക്കെ ഓക്കെ ആ ഒരു മണി ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എന്നെങ്കിലും സ്പെഷലായിട്ട് മറ്റേ ജ്യൂസ് അങ്ങനെ ഐറ്റംസ് ഫ്രൂട്സ് എന്തേലും ഐറ്റംസ് കൊടുത്തുവിടണമോ ആവശ്യമില്ല അതെ അത് കാപ്പിക്കു സമോസയുണ്ട് ആ ഏത്തയ്ക്കാ അപ്പമുണ്ട് മോദകമുണ്ട് ഉഴുന്നവട ഉണ്ട് ഉള്ളിവട ഉണ്ട് ഏതാണു വേണ്ടതെന്നു പറഞ്ഞാല് മതി പരിപ്പുവട ഉണ്ട് ഏത് വേണമെങ്കിലും കൊടുത്തുവിടാം എത്ര പേർക്കു വേണം എത്രയെണ്ണം വേണമെന്നു പറഞ്ഞാല് മതി

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ എത്ര എണ്ണം കൊടുത്തു വിടണമെന്നുകൂടെ പറയുകയായിരുന്നെങ്കില് കൊടുത്തു വിടാമായിരുന്നു ആ ഉഴുന്നുവടയും ആ ഓക്കെ ഇത് രണ്ടും ഓക്കെ ഓക്കെ ഓക്കെ ഈ രണ്ട് ഉച്ചയ്ക്കത്തെ ഈ ബിരിയാണി കൊടുത്തിു വിടുന്ന ദിവസം തന്നെയാണ് നിങ്ങളുടെ വീട്ടില് പ്രാർഥന നടത്തുന്നേ വൈകിട്ട് തന്നെയാണ് അതേ ദിവസം തന്നെയാണല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ഇത്രയും സാധനം മതിയല്ലോ ആ കൃത്യമായിട്ടീ സാധനങ്ങള് നിങ്ങള്ക്കു കൃത്യം ഒരു മണിയവുമ്പോള് നിങ്ങള്ക്കു വീട്ടിലെത്തിച്ചുതരും ഓക്കെ ഓക്കെ ചൂടോടെ തന്നെ തരാം ആ ഓക്കെ ഓക്കെ ചൂടോടെ തന്നെ അതെ ചായ വേണോ കാപ്പി വേണമോ എന്നുള്ളതു നിങ്ങളോഡർ ചെയ്യുന്നതിനനുസരിച്ച് ഞങ്ങളവിടെ എത്തിക്കുന്നതായിരിക്കും ആ ആ വിത്തൗട്ടും ഓക്കെ ഓ ഓക്കെ ഓക്കെ ഞങ്ങള്ള് അതുപോലെ തന്നെ ചെയ്യാം കാപ്പിയും വേണം ചായയും വേണം വിത്തും വേണം വിത്തൗട്ടും വേണം അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ കുഴപ്പമില്ല ആ ആ ശരി എല്ലാം ചൂടോടെ തന്നെ അവിടെ എത്തിക്കാം കേട്ടോ ഓക്കെ എല്ലാം അവിടൊക്കെ ചൂടോടെ തന്നെ എത്തിക്കാം ധൈര്യമായിട്ടിരിക്കൂ ശരി ഓ നാലു മണിക്കു മതിയല്ലോ അല്ലേ ഓക്കെ